പക്ഷികളെ ഇഷ്ടപ്പെടാത്ത ആളുകള് ഉണ്ടോ എനിക്ക് പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ വീട്ടില് മുറ്റ മുറ്റത്ത് സിറ്റൌട്ടിലിരുന്നു പുറത്തോട്ട് നോക്കുകയാണെങ്കില് നിറച്ചും അടുത്ത വസ്തുവില് മരങ്ങളും തെങ്ങ് വലിയ മരങ്ങളും തെങ്ങുകളും അയ്നി ചക്കേടെ മരവും പിന്നെ മാ മാവ് ഇതെല്ലാം ഇങ്ങനെ നില്പുണ്ട് രാവിലെയും വൈകുന്നേരവും നമ്മള് സിറ്റൌട്ടിയിരുന്നൊന്ന് നോക്കുകയാണെങ്കില് നല്ല നല്ല വെറൈറ്റി പക്ഷികളെ കാണാമ്പറ്റും ഈ പക്ഷികളൊക്കെ ആഹാരം അന്വേഷിച്ച് അയ്നിച്ചക്ക കഴിക്കുന്ന സമയത്ത് അയിന്ക്ക് ആ ചക്ക കഴിക്കാന് വേണ്ടി ഈ അയ്നി മരത്തില് വന്ന് ഇരിക്കാറുണ്ട് പിന്നെ എന്റെ എന്റെ വീട്ടിലെ ഫ്രണ്ടത്തെ പൂന്തോട്ടത്തില് ഞാന് വെള്ളം വെക്കും വെള്ളവും പിന്നെ ആഹാരം തി തിന ആ സാദാ തിനയും സണ്ഫ്ലവര് സീഡും ഉടയ്ക്ക് നമ്മളൊരു പാത്രത്തില് വച്ചേയ്ക്കും വേനല്ക്കാലത്താണെങ്കില് ഇവര് വന്നതീന്ന് വെള്ളം കുടിക്കുകയും ചില പക്ഷികള് അത് കുളിക്കുകയും ചെയ്യുന്നു മൈനയൊക്കെ വന്ന് ആ വെള്ളത്തില് കുളിക്കും ചെറിയൊരു ബേസിന് പോലത്തൊരു പാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിന്റെയകത്ത് വെള്ളം വച്ചിരിക്കുന്നുണ്ട് പിന്നെ രാവിലെ ഒന്ന് കിച്ചന്റെ സൈഡില് ചോറും എന്തേലും വേസ്റ്റൂടുണ്ടെങ്കില് അതിട്ട് കഴിഞ്ഞാല് കാക്ക പിന്നെ നമ്മുടെ മൈന ഇവരൊക്കെ വന്നവിടെ വന്ന് കഴിക്കാറുണ്ട് പിന്നെ ഫ്രണ്ടില് ഒരു പേര മരം ഉണ്ട് അതില് നം തത്ത തത്ത പഴുത്ത പേരയ്ക്ക കഴിക്കാന്വേണ്ടി തത്ത വരാറുണ്ട് ഇതെ പിന്നെ ഇറങ്ങിവന്ന് നോക്കുമ്പോള് അവരെ അവര് നമുക്കറിയും അവരടുത്ത ശിഖരട്ട് ശിഖരത്തിലോട്ട് കയറിയിരിക്കുമ്പോള് നമ്മളറിയുന്നത് അപ്പം തത്തേണ് കാരണം ഇലയും തത്തയും നമ്മള്ക്ക് തിരിച്ചറിയാന് പറ്റത്തില്ല ഇതിലാണ് കെ തത്ത വന്ന് അതിന്റെ അകത്തിരിക്കുന്നത് അപ്പോള് പച്ചത്തത്തയെപ്പോലെ തന്നെ വേറൊരു കിളി വരും ചുണ്ട് ബ്രൌണ് കളറില് ജാമ്പവെ ജാമ്പയില് ജാമ്പയ്ക്ക കഴിക്കാന് വേണ്ടി അങ്ങനെ ഒത്തിരി കിളികളെ നമ്മള്ക്കിവിടെ കാണാന് മഞ്ഞക്കിളിയുണ്ട് മഞ്ഞയും കറുപ്പും കൂടെ ചേര്ന്നൊരു കിളി അതിന്റെ ചുണ്ട് നല്ല കറുപ്പായിരിക്കും വാലും നല്ല കറുപ്പ് പിന്നെ ബോഡി മഞ്ഞയും കറുപ്പും കൂടെ ചേര്ന്ന കളറാണ് പാവം ഇവര്ക്ക് ചില സമയങ്ങളിലാഹാരം കിട്ടാതെയിങ്ങനെ പറന്ന് പറന്ന് വരുന്നവരുടെടെ ഫ്രണ്ടില് വന്നു നിന്നലയ്ക്കുന്നതു കാണാം പാവം തോന്നും ഞാനത് കാരണം ഇതിന് ഫുഡ് വരെ വച്ചിട്ടുണ്ട് അവര് വന്നിരുന്നു കഴിക്കലും കാറും കഴിക്കുന്ന കാണാന്തന്നെ നമുക്കൊരു രസമാണ് അതേപോലെ പ്രാവ് പ്രാവ് എന്റെ വീടിന്റെ മുകളില് മിക്ക ദിവസവും രണ്ട് പ്രാവുകള് കാണും അപ്പോള് എന്തെങ്കിലും ഇങ്ങനെ ചോറോ എന്തേലും ഒക്കെ തറയി ആ ബാക്ക് സൈഡിലൊക്കെ ഇടുമ്പോഴത്തേക്കും അവര് പറന്നുവന്ന് അതിനെ കഴിക്കും കഴിച്ചുകൊണ്ടുപോവും പക്ഷികള്ക്ക് പക്ഷികള്ക്കു നമ്മള് അവര്ക്കെന്താ എല്ലാ വീടുകളിലും അതുകൊണ്ടാണ് ഞാന് പറയുന്നത് പക്ഷികള്ക്ക് കുറച്ച് വെള്ളം വയ്ക്കണം പാവം എപ്പോഴും ഒരിടത്തും വെള്ളവും മരങ്ങളും എല്ലാം നശിച്ച് വെട്ടി നശിപ്പിച്ചതു കാരണം അവര്ക്ക് ആഹാരം ഒന്നും കിട്ടുന്നില്ല വെള്ളത്തിനായാലും ഒത്തിരിയൊത്തിരി ഇത്രയും ചൂടായതോടെ ഒത്തിരി ദൂരങ്ങള് പറന്ന് പോയി വേണം അവര്ക്ക് വെള്ളം കുടിക്കാന് വേണ്ടി ഒന്നുമില്ലെങ്കിലും നമ്മടെ പൂന്തോട്ടങ്ങളില് കുറച്ച് വെള്ളം വെച്ചിരുന്നാല് മതി അവരുടെ ദാഹം ശമിക്കാന് വേണ്ടി കുറച്ച് വെള്ളം അവര്ക്ക് പക്ഷികള്ക്കതൊരു വലിയ അനുഗ്രഹമാണ്